ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അമ്മ ഒന്ന് വിണിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ വീണ് കാലിന് ചെറിയ പരിക്ക് പറ്റി അമ്മ രണ്ട് മൂന്ന് ആഴ്ച കിടപ്പിലായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ എങ്ങനെയാണ് പാചകം ചെയ്യുക എന്നൊക്കെ അമ്മയോട് ചോദിച്ചു പഠിച്ച് പാചകം തുടങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പാചകം ചെയ്യുന്നതും അങ്ങനെയായിരുന്നു ഞാൻ അപ്പോൾ ചോറും കറിയും വെക്കാൻ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ അമ്മയോട് ചോദിച്ച് അതിന് എന്തൊക്കെ വേണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ ചോദിച്ച് ഇത് ആക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഫുഡ് ഒക്കെ പ്രിപ്പയർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്തത് അന്നേദിവസം ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഒക്കെ ആയിട്ട് അമ്മ ഹെൽപ്പ് ചോദിക്കുമെങ്കിലും എനിക്ക് പിന്നീട് ഒരു മടിയായിരുന്നു അമ്മ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കെന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ ഒക്കെ മടിയാകുമല്ലോ പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പിന്നീട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു പിന്നെ അമ്മ ഉണ്ടാക്കി തരുന്നതും കഴിച്ചു ഞാൻ വീട്ടിൽ ഇങ്ങനെ കിടക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് വന്നത് പിന്നെ ഇപ്പോൾ കുറെ ആയിട്ട് ഫുഡ് ഒക്കെ നമ്മൾ തന്നെ പ്രീപെയർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുറെ ഒക്കെ ഫുഡ് നമ്മൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു